മഴക്കാലം ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സാധാരണ ഇവിടെ ഉണ്ടാകാറുള്ളത് അത് കാലവർഷമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഈ കാലവർഷകാലത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുകില്ല ബയ എപ്പോഴും മഴയാണ് സാധുക്കളായ ആളുകൾക്ക് ഒരു പണി ചെയ്യാൻ പോലും സാധിക്കത്തില്ല കൃഷി കൊണ്ട് ജീവിക്കുന്നവരും കൂലി പണിയെടുത്ത് ജീവിക്കുന്നവരുമുണ്ട് അവർക്ക് ഈ മഴ തുടങ്ങിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെതന്നെ ഈ തുലാവർഷം തുടങ്ങിയാൽ ഇടിയും മിന്നലും ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് ആ അതുകൊണ്ട് നമുക്ക് വീട്ടിലെ അകത്തുതന്നെ കു ഇരിക്കേണ്ടിവരും പുറത്തോട്ട് ഇറങ്ങാനോ നോക്കാനോ പറ്റുകില്ല അതുപോലെ ഇടിയും മിന്നലും ഈ ഇടിയും മിന്നലും ഏറ്റാൽ ചില സമയങ്ങളിൽ നമുക്ക് അപകടം സംഭവിക്കും പിന്നെ ജീവ ജീവഹാനി വരെ സംഭവിക്കാൻ ഇടയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ട് ഈ മഴ മഴക്കാലം എല്ലാം ഏതു വിധത്തിൽ നോക്കിയാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് വീടും പരിസരങ്ങളും ഒന്നും വൃത്തിയായി സൂക്ഷിക്കാൻ ഒക്കത്തില്ല എപ്പോഴും ചെള്ളയും ചെളിയുമായിട്ട് വീടിൻ്റെ എല്ലാ വശങ്ങളും നനഞ്ഞു നാറി കിടക്കും പിള്ളേർക്ക് പള്ളിക്കൂടത്തിൽ പോകാൻ പോലും ബുദ്ധിമുട്ടാണ്